കേരളത്തിലെ ഒരു സാംസ്കാരിക കലാരൂപമാണ് മോഹിനിയാട്ടം തമിഴ്നാട്ടിലേത് കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവേ പാട്ടിന് അനുസരിച്ച് സ്ത്രീകൾ കളിക്കുന്ന ഒരു നല്ല ഒരു കളിയാണ് അതുപോലെ കേരത്തിലെ ഒരു കലാരൂപമാണ് കഥകളി കഥകളി പാട്ട് പാട്ടുപാടുന്നതിന് അനുസരിച്ചു അവരുടെ കൈയും കണ്ണും മുഖവും ഒക്കെ മുഖ ഭാവവുമൊക്കെ മാറും അതുപോലെ ഓരോ കഥക്ക് അനുസരിച്ചാണ് അവർ അത് വേഷം ധരിക്കുന്നതും അവരുടെ മുഖത്തിൽ കളർ ചെയ്യും ചായം പുരട്ടുന്നതും അവരുടെ കൈകളുടേയും ഒക്കെ ആക്ഷൻ കാണിക്കുന്നതും കാണിക്കുന്നതും എല്ലാം അത് നമ്മുടെ പുറ പുറം രാജ്യക്കാർ വേറെ രാജ്യത്തുള്ള ആൾക്കാർ ഇവിടെ നമ്മുടെ കേരളത്തിൽ വരികയും കഥകളി കാണാനും കൂടുതലും വരുന്നത് നമ്മുടെ അമേരിക്കൻസ് ആണ് അമേരിക്കൻസ് കൂടുതലും ഇവിടെ വന്നു കോവളം സൈഡിലൊക്കെ താമസിച്ച് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ ഹോട്ടലിലൊക്കെ താമസിച്ച് കഥകളിയൊക്കെ കണ്ട് ആസ്വദിക്കാറുണ്ട് അതുപോലെ തന്നെ മോഹിയാട്ടവും പിന്നെ വേറെ ഒരു കലയാണ് നമ്മുടെ കോഴിക്കോട് സൈഡിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും മാപ്പിളപ്പാട്ട് ദഫ് കളിയും ആണുങ്ങൾ കളിക്കുന്ന ഒരു കളിയാണ് അത് മാപ്പിളപ്പാട്ട് സ്ത്രീകളുടെ മുസ്ലിം സ്ത്രീകൾ ചെയ്യുന്ന ഒരു പ്രത്യേക തരം കലയാണ് അത് എല്ലാം കാണാനും ഓരോ ഓരോ സംസ്ഥാനത്തിലും അതിൻ്റേതായ ഒരു പ്രകത്യേകതയുണ്ട് അവിടുത്തെ കല കലകളും ഒരു പ്രേത്യേക രീതിയിലാണ് പിന്നെ നമ്മൾ കുറച്ചു ഉള്ളിലോട്ട് പോയി കഴിഞ്ഞു നാടൻ പാട്ടുകളുണ്ട് നാടൻ പാട്ടുകളുടെ കുട്ടത്തിൽ തന്നെ അവർ ഡാൻസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവർ കഥാരൂപത്തിലാണ് ആ പാട്ട് അവതരിപ്പിക്കുന്നത് കഥ ഒരു പാട്ട് രൂപത്തിലാണ് അവതരിപ്പിച്ചു കളിച്ചു കാണിക്കുന്നത് ഇത് മറ്റു രാജ്യങ്ങൾക്ക് നമ്മൾ ഒരു ആകർഷണം തന്നെയാണ് കഥകളിയും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയുമൊക്കെ അവർ അത് കാണാൻ വേണ്ടിയും നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയും അവിടെ നിന്നും ഇങ്ങു കേരളത്തിൽ വരികയും വള്ളംകളി അതൊക്കെ ഒരു കാണേണ്ട കാഴ്ച്ചകൾ തന്നെയാണ്